മലയാളി എന്ന നിലയിൽ മലയാളത്തിലുള്ള കൂടുതൽ താല്പര്യം എനിക്കുണ്ട് മലയാളിയായി ജനിച്ചതിൽ എനിക്ക് വളരെ താല്പര്യം ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അപ്പൻ അമ്മ മക്കൾ അധ്യാപകർ അയൽപക്കക്കാർ എന്നു വേണ്ട മലയാളത്തിലുള്ള വാക്കുകൾ തന്നെ എനിക്കഭിമാനമായി തോന്നുന്നു നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് മലയാളത്തിൽ ഈശോ എന്നു പറയുന്നത് ചിലപ്പോൾ ഉള്ളവർ രസകരമായി തോന്നുന്നു മലയാളിയായി മലയാളഭാഷയെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു മലയാളിയായതിൽ എനിക്ക് അഭിമാനം ഉണ്ട് ധാരാളം വാക്കുകൾ മലയാളത്തിൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നു ആ പല വാക്കുകളും ഞാൻ ഇഷ്ടപ്പെടുന്നു

എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യുമുള്ള ഞാൻ ജനിച്ച എൻ്റെ സ്ഥലം ഭരണെങ്ങാനം ഉപ്പുതോട് തോപ്പളാങ്കുടി എന്നീ പ്രദേശങ്ങളിലൊക്കെ ജീവിതം ആസ്വദിക്കുന്നു മലയാളി ആയതിൽ എനിക്ക് അഭിമാനം ഉണ്ട് മലയാളം എന്ന വാക്കുകൊണ്ട് ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയുവാൻ സാധിക്കുന്നു മലയാളത്തിൽ എവിടെ ചെന്നാലും ഒരു മലയാളിയെ എങ്കിലും ലോകത്തിൽ എവിടെ ചെന്നാലൊരു മലയാളിയെ എങ്കിലും കാണാൻ സാധിക്കുന്നു അതിൽ അഭിമാനം കൊളളുന്നു മലയാളിയെന്ന വാക്കുകൊണ്ട്

കൂടുതൽ സഹായകരമായ വല്ലതും അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നു മലയാളി എപ്പോഴും മലയാളിയോട് ആഭിമുഖ്യം കാണിക്കുന്നു എൻ്റെ പ്രദേശത്തുള്ളപോലെ അധികമാനം ആളുകളും മലയാളം സംസാരിക്കുന്നു മലയാളത്തിൽ കൂടുതൽ വായിക്കുവാൻ സാധിക്കുന്നു മലയാളത്തോട് പൊതുവേ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഒരു മലയാളിയായതിൽ മക്കൾ ഇതിൽ വളരെയേറെ സന്തോഷിക്കുന്നു മലയാളത്തിൽ കൊണ്ടെനിക്ക് പലതും ചെയ്യാൻ സാധിക്കുന്നു മലയാളി എന്ന നിലയിൽ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു കൂടുതൽ വായനയിലൂടെ മലയാളത്തിലൂടെ അറിവുകൾ ലഭിക്കുന്നതോ മലയാളിയെ സംബന്ധിച്ച് എപ്പോഴും അഭിമാനകരമായ സംസാരിക്കാനും പ്രസംഗിക്കുവാനുമൊക്കെ സാധിക്കുന്നു അങ്ങനെ കൂടുതൽ കൂടുതൽ ഞാൻ മലയാളത്തെ ഇഷ്ടപ്പെടുന്നു മലയാള ഭാഷയെ സ്നേഹിക്കുന്നു മലയാളത്തിൽ വ്യക്തമായി എഴുതുവാനും പഠിക്കുവാനും കൂടുതൽ കൂടുതൽ വായിക്കുവാനും സാധിക്കുന്നു അങ്ങനെ മലയാളത്തെ മലയാള ഭാഷയെ ഞാനേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു മലയാളത്തിൽ സന്തോഷിക്കുന്നു

സഹോദരങ്ങൾ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ സഹപാഠികൾ സ്നേഹിതർ എല്ലാവരും എല്ലാവരോടും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു